ചേർക്കാൻ പറ്റുവോ എന്ന് അല്ലേ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പം ഒന്നും ഇല്ല അപ്പം അവിടെ ഏതൊക്കെ വിഷയം ആണ് എടുത്തേക്കുന്നത് അതായത് മലയാളം അങ്ങനത്തെ ലാംഗ്വേജ് ഒക്കെ കോയമ്പത്തൂർ ഉണ്ടോ ഇംഗ്ലീഷ് മീഡിയം ആണ് കുഴപ്പം ഇല്ല ആ നമുക്ക് ഇവിടെ ലാംഗ്വേജ് ഒരെണ്ണം എക്സ്ട്രാ വരുന്നുള്ളൂ മലയാളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും ആ അപ്പോൾ എന്തായാലും പകുതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇപ്പം ഇപ്പം ഓണം കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ഏകദേശം കുറേ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം മേഡം കൊച്ചിനെയും കൊണ്ട് വന്ന് കഴിഞ്ഞാൽ പെട്ടെന്നുതന്നെ ചേർക്കുവാണെങ്കിൽ ഇപ്പം അഥവാ കഴിഞ്ഞ് പോയത് ആണെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സ് ഒക്കെ ആയിട്ട് നമുക്ക് കുട്ടീനെ ഫസ്റ്റ് തൊട്ട് നമുക്ക് പഠിപ്പിക്കാൻ ഒക്കെ പറ്റും കുഴപ്പം ഒന്നും ഇല്ല ആ പെട്ടെന്നുതന്നെ കൊണ്ട് ചേർക്കണം ആ ഓക്കെ ഓക്കെ പെട്ടെന്നുതന്നെ വന്ന് ചേർക്കുവാണെങ്കിൽ ആ ഡീറ്റെയിൽസും കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്ത് തന്നാൽ മതി ഞാൻ ഇവിടെ അഡ്മിഷനും കാര്യങ്ങൾ ഒക്കെ എടുത്ത് വയ്ക്കാം കുഴപ്പം ഇല്ല പിന്നെ അവിടെനിന്ന് വരുമ്പോൾ ടി സി കൊണ്ടുവരണം ടി സി നമുക്ക് ഇവിടെ നിർബന്ധം ആയിട്ടും ആവശ്യം ഉള്ളതാണ് കേട്ടോ ആ ആ പിന്നെ വേറെ എന്തെങ്കിലും അറിയണോ ഓ അതൊക്കെ എടുത്തുതരാം അതൊക്കെ പറഞ്ഞുകൊടുക്കാം അതൊന്നും കുഴപ്പം ഇല്ല അതൊന്നും നമുക്ക് പ്രശ്നം ഇല്ല ഇനിയിപ്പോൾ അഥവാ എന്താണ് പറയുക സ്കൂളിൽ ഇത്രയും ആൾക്കാർ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് നമുക്ക് ചെയ്തുകൊടുക്കാം

ഇവിടെ ഡോണേഷൻ ആയിട്ട് വേണ്ടത് അറുപതിനായിരം രൂപയാണ് പിന്നെ അല്ലാത്ത ഫീസുകൾ കാര്യങ്ങൾ ഒക്കെ വരൂന്നത് എക്സ്ട്രാ തന്നെ വരും ഇപ്പം ബസ്സിൻ്റെ ആണെങ്കിലും യൂണിഫോമിൻ്റെ ഒക്കെ ആണെങ്കിലും എക്സ്ട്രാ ഫീസുകളാണ് കാര്യം വരുക അത് നിങ്ങൾ ഒരു നിങ്ങൾ എന്തായാലും വന്നോളൂ എന്നിറ്റ് നമക്ക് എങ്ങനെയാന്ന് വച്ചാ നമക്ക് സംസാരിച്ച് റെഡി ആക്കാവുന്നെ ഉള്ളൂ

ഒരു മാനേ ആ ആ ഇവിടെ നമുക്ക് അറുപതിനായിരം രൂപയാണ് വരുന്നത് ആ ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ഒരു തീരുമാനം ആണ് അറുപതിനായിരം രൂപ എന്ന് ഉള്ളത് അപ്പം അതുകൊണ്ട് മേഡം ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം മേഡം എന്തായാലും പോന്നോളൂ എന്നാൽ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്തേക്കൂ കേട്ടോ ആ അതെ അതെ